ഹലോ ഹലോ അക്ഷയകേന്ദ്രമല്ലേ ഇത് മാടത്തശ്ശേരി വീട്ടിന്നാ വിളിക്കുന്നത് കുമ്പഴേന്ന് ഇപ്പോള് ഞാന് വിളിച്ചാരുന്നെച്ചിര്ന്നാലെ എനിക്ക് ഒരു കുട്ടി ഉണ്ടായാരുന്നു അപ്പോള് അതിന് അതിൻ്റെ പാസ്പ്പോട്ട് പാസ്പ്പോട്ട്ന്നെച്ചെയ്ഞ്ഞാ അതിനകത്ത് പുതിയ ജനിച്ച കുട്ടിയല്ലേ എന്നാലപ്പോള് അതനിപ്പോള് എനിക്കാണെങ്കില് അമേരിയ്ക്കക്കോട്ട് പോവുകയും ചെയ്യണം അപ്പോള് ഇതിനെക്കൂടെ ആ പാസ്പോട്ടിനകത്ത് നമുക്കാഡ് ചെയ്യണം ആഡ് ചെയ്യണോന്നെച്ചൈഞ്ഞാ അപ്ഡേറ്റ് ചെയ്യാതെ നമുക്ക് പോവാൻ പറ്റുകേലല്ലോ അപ്പോള് അങ്ങനെ വരുമ്പോള് അതിനുള്ള ഫോർമാലിറ്റീസെങ്ങനെയാണോ അതിൻ്റെ കാര്യങ്ങളെങ്ങനെയാണോ എന്നക്കെയുള്ള ഒരു കാര്യങ്ങള് അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോള് എന്നോട് പറഞ്ഞായിരുന്നല്ലോ അതനുസരിച്ചുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാങ്കൂടെ ഞാൻ കളക്റ്റ് ചെയ്തിട്ടുണ്ട് അതുമെല്ലാമായിട്ട് ഞാനത് എത്രയും പെട്ടന്ന് ഞാനവിടെ വന്ന് കഴിഞ്ഞെന്നാലൊന്ന് പെട്ടെന്നൊന്നു ചെയ്തു തരികയും ഏയ്നി ചുരുങ്ങിയ സെവസേ ഉള്ളു അതിനാൽ എത്രയും പെട്ടെന്ന് സ്പീഡാക്കിത്തരികയും ചെയ്യണം അതിന് വേണ്ടിയായിട്ട് വിളിച്ചതാണ് അപ്പോള് അവിടെ വരുമ്പോള് തിരക്കായതിരിക്കുവല്ലൊച്ച ഇങ്ങനെയുള്ള മാറ്റര് സംസാരിക്കാൻ പറ്റിയേലല്ലോ അവിടെ മറ്റ് കസ്റ്റമേഴ്ള്ളസുള്ളതുകൊണ്ട് അത് കാരണങ്കൊണ്ട് ഇതൊന്ന് ഫാസ്റ്റാക്കി ഒന്ന് തരണം അതനുസരിച്ച് അതിന്റെ മറ്റേ എല്ലാ ഡോക്യൂമെൻസ്സുമുണ്ട് ഹോസ്പിറ്റൽ ഡീറ്റേയ്ൽസും അതിൻ്റെ ഡേറ്റ് ഓഫ് അത് മറ്റ് കാര്യങ്ങളെല്ലാമുണ്ട് അപ്പോള് അതെല്ലാങ്കൂടെ വച്ചിട്ട് എൻ്റെയീ പാസ്പ്പോട്ടിനകത്തൊന്ന് ആഡ് ചെയ്തുതരണം